ഇപ്പോൾ വരൾച്ചയുള്ള സമയങ്ങളിലൊക്കെ നമ്മള് കൂടുതലായിട്ടും ചെടിയൊക്കെ വളർത്തുന്നതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടുള്ള ഒരു കാര്യം ആണ് കാരണം എന്തെന്നു വെച്ചു കഴിഞ്ഞാല് വെള്ളമൊന്നും ചില സമയങ്ങളില് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക അപ്പം നമ്മള് ആ സമയങ്ങളിലൊക്കെ നല്ല രീതിയില് വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ ചെടികളൊക്കെ നാശമാകാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നതാണ് അപ്പം എന്താ പറയുക നമ്മള് നല്ല രീതിയില് ചെടികൾക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാല് നല്ല രീതിയില് ചെടി വളരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മള് വരൾച്ച ഉള്ള സമയത്ത് കൂടുതലായിട്ടും രാവിലെയും വൈകുന്നേരവും കറക്റ്റ് ടൈമിന് നനയ്ക്കാനക്കെ ശ്രമിക്കുക അപ്പം അന്നാൽ മാത്രമെ ചെടിയാണെങ്കിലും ഇപ്പം പച്ചക്കറിയാണെങ്കിലും എന്ത് ഇതാണെങ്കില് നമുക്കതിന് നല്ല രീതിയിലുള്ളൊരു വെള്ളവും കാര്യങ്ങളൊക്കെ ഏത് സമയത്തും ഒഴിച്ച് കൊടുക്കുക പിന്നതിന് ഇടവേള സമയങ്ങളില് ചിലപ്പോൾ വെള്ളൊഴിച്ചു കൊടുക്കേണ്ടി വരും കാരണം അതിൻ്റെ വെള്ളമൊക്കെ വേഗം വറ്റി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് കാരണം നല്ല രീതിയിലുള്ള വെയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ സമയങ്ങളിലൊക്കെ ഇത് വാടി ഇരിക്കുന്ന ടൈം ആരിക്കും പിന്നെ നമ്മള് കൂടുതലായിട്ടും ഈ വെയിലുള്ള സമയങ്ങളിലൊന്നും വെള്ളമൊഴിച്ചു കൊടുക്കാണ്ടിരിക്കുക വൈ കൂടുതലായിട്ടും രാവിലെയും വൈകുന്നേരവും മാത്രം നമ്മള് വെള്ളമൊഴിച്ചു കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കില് ചെടി നന്നായിട്ട് വളരും